ഹലോ ആ ഇത് മങ്ങാട്ട് കരയിൽ നിന്നാണ് ഞാൻ ഇത് അറഫ ഹോട്ടൽ അല്ലേ ആ ഞാൻ കുറച്ച് മുന്നേ ഒരു ഒരു ഓർഡറ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് അൽഫാം മന്തിയും ഫുള്ളും പിന്നെ രണ്ട് ബിരിയാണിയും ആ പക്ഷേ എനിക്ക് അതിൽ ഒരു തിരുത്ത് ഉണ്ട് കേട്ടോ എനിക്ക് രണ്ട് അൽഫാം മന്തി ആയിരുന്നില്ല വേണ്ടത് എനിക്കൊരു കുഴി മന്തിയും ഒരു അൽഫാം മന്തിയുമായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പം ഓർഡർ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം രണ്ടും അൽഫാം മന്തിയായിപ്പോയി അപ്പം എനിക്ക് അതൊന്ന് മാറ്റണമായിരുന്നു അപ്പം മാറ്റി തരുമോ ഇവർ നിങ്ങൾ തന്നാൽ ഓ തരും അല്ലേ അപ്പം എങ്ങനെയാണ് എമൗണ്ടിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞ് തരുമോ എത്ര രൂപ ചേയ്ഞ്ച് ഉണ്ടാവും

ഓ അപ്പം അ അത്തരം വരുമല്ലേ ആ അപ്പം നിങ്ങൾ എനിക്ക് ഇപ്പം തരുമോ നിങ്ങൾ മാറ്റി തരുമോ ആ അപ്പം എത്ര സമയത്തിനുള്ളിൽ വരും നിങ്ങൾ ഓ അ ശരി ആ ഒരു വളരെ ഉപകാരം താങ്ക് യു